മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഒന്ന് അഞ്ച് രണ്ട് രണ്ടായിരത്തി അഞ്ച് നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഒന്ന് പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട്